ഇന്ത്യയിലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല ശാസ്ത്രജ്ഞന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ തന്നെ നമ്മുടെ ബഹിരാകാശത്തേക്ക് വിട്ട അപ്പോൾ ഈ ചന്ദ്രനിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുള്ള ചന്ദ്രയാൻ ത്രീയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ഉണ്ടാക്കിയതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശാസ്ത്രജ്ഞന്മാരാണ് ആപ്പോൾ അവരൊക്കെന്നു പറഞ്ഞു കഴിഞ്ഞാല് പലര് പല കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടാണ് ഇങ്ങനത്തെ ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴൊരു റോക്കറ്റ് നമ്മള് ഉണ്ടാക്കിട്ട് അത് മേലേക്ക് വിട്ടു കഴിഞ്ഞാല് അത് എങ്ങനെ എത്തണം എവിടെ ഇറങ്ങണം എന്നൊക്കെ അവര് തീരുമാനിക്കണം അപ്പോൾ അതൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവാണ് കാരണം നമ്മളിപ്പോൾ റോഡിലൂടെ ഓടുന്ന വണ്ടി അടക്കം അത് ഓടുന്നതുണ്ടെങ്കില് അതിനു അതുണ്ടാക്കാനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആ വണ്ടി എങ്ങനെയാണു ഓടുന്നത് ഒരു ഡീസലുകൊണ്ട് എങ്ങനെയാണു ഒരു ഒരു ദ്രാവകം മൂലം എങ്ങനെയാണ് വണ്ടി ഓടുന്നതെന്നൊക്കെ അറിയുന്നുണ്ടെങ്കില് ഇത് ഉണ്ടാക്കിയവരാണ് ഏറ്റവും മികച്ച മികച്ചതായിട്ട് ഉള്ള ആൾക്കാരെന്നു പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിലും അതേപോലെയുള്ള ആൾക്കാരും ഒക്കെയുണ്ട് ഇപ്പോൾ ചന്ദ്രയാൻ ടു ഉണ്ടാക്കിയ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാവരും എന്നു പറഞ്ഞു കഴിഞ്ഞാല് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ മെയിനായിട്ടുള്ളൊരു ആൾക്കാരാണ് പിന്നെ നമുക്ക് സിവി രാമൻ എന്നൊക്കെ പറയാം അത് മാത്സിന്റെ വലിയൊരു ശാസ്ത്രജ്ഞനാണ്